ഹലോ ഇത് വിളയംച്ചിറൻസ് ഓഫീസല്ലേ മല്ലപ്പള്ളിയിലെ ആ മേടം എൻ്റെ പേര് ലിൻറ്റു നേനേൻ എന്നാണ് ആ മേടം ഞാൻ വിളിക്കുന്നതെന്നായെന്നു വെച്ചാൽ എനിക്കാണേൽ ഞാൻ വളരെയധികം ഒരു കർഷക കുടുംബമാണ് എൻറ്റേത് അപ്പം പഴയകാലഘട്ടംതൊട്ട് കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത് കൃഷി തന്നെ കൃഷി തന്നെ പരമ്പരാഗതമായി തൊഴിൽ ചെയ്തു ജീവിക്കുന്ന ആൾ ആളാണ് ഞാൻ ഞാനും എൻ്റെ കുടുംബവും കൃഷിയാണ് വീട്ടിലെ പ്രാധാനപ്പെട്ട ഞങ്ങളുടെ ജീവിതം തന്നെ കൃഷിയിലാണ് അപ്പവും എൻ്റെ കയ്യിലൊന്നും ഞാൻ പല പല കൃഷികൾ ചെയ്യാറുണ്ട് കപ്പക്കൃഷി അതു പോലെ വാഴ അതു പോലെ തന്നെ പ്ലാവ് ചക്ക വാഴ വാഴക്കൊലയാണെങ്കിലും ചക്കയൊക്കെ ആണെങ്കിലും പച്ചക്കറി കടകളിൽ കൊടുക്കുന്നുണ്ട് അവ ഫ്രഷായിട്ടുള്ളവ പച്ചക്കറി മാക്സ് നന്നായിട്ടു തന്നെ അത് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് കൊടുക്കാനാണ് എൻറ്റൊരുദ്ദേശം അതിലൂടെ ആൾക്കാർക്ക് നല്ല വിഷം ഇല്ലാത്ത പച്ചക്കറികൾ മറ്റു സംസ്ഥാനങ്ങൾ ഇതു ചെയ്യാതെ തന്നെ നമ്മൾ നമ്മുടെ കേരളത്തിനു തന്നെ ഒരു മാതൃകയെന്ന പോലെ സ്വന്തമായിട്ടുള്ള രീതിയിൽ നല്ല ഫ്രഷായിട്ടുള്ള മറ്റ് അണുക്കളും ഒന്നും കയറാത്ത കൃഷിയിലൂ ഒരിതിലൂടെ പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനാണ് എൻ്റെയൊരു ശ്രമം അപ്പം ഞാനേ എനിക്കാണെങ്കിൽ ഇൻറ്റർനെറ്റിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ അത് അത് ഇൻറ്റർനെറ്റുമായിട്ടുള്ള അറിവ് വളരെയധികം പരിമിതമായിട്ടുള്ളൊരു കർഷകനാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വളരെയധികം എന്തായിരുന്നു ടെക്നോളജിയുടെ പലമാറ്റങ്ങളിലൂടെ ആൾക്കാർ ഫോണിലൂടെയൊക്കെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്ക് സംവിധാനങ്ങളെല്ലാം ഫോൺ വഴിയാണിപ്പോൾ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ പരിമിതമാണ് ഇൻറ്റർനെറ്റിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അത് അതിൻ്റെ ഉപയോഗം വളരെ കുറവൊള്ളൊരു കർഷകനാണ് ഞാൻ അതു പോലെ തന്നെ എൻ്റെ ബാങ്കിങ് രീതിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ പാരമ്പരാഗതമായിട്ട് അതായത് ഫോൺ വഴിയൊക്കെ ഉപയോഗിക്കാതെ നേരിട്ട് ബാങ്ക് ചെന്ന് ബാങ്കിൽ ചെന്നിട്ടാണ് എൻ്റെ പല പേയ്മെൻറ്റുകളും ഞാൻ നടത്താറുള്ളത് അത് ആ ഒരു രീതിയാണെനിക്കിഷ്ടപ്പെടുന്നത് കാരണം നമ്മളിപ്പം മൊബൈൽ ഫോണിലൂടെയൊക്കെ നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ വലിയ കുഴപ്പമെന്നു ഉണ്ടാകത്തൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നൊന്നാണ് എന്നാൽപ്പോലും എനിക്കൊരു പേടിയാണ് കാരണം എങ്ങാനും നമ്മുടെ പൈസ പോകുമോ കൃത്യമായിട്ടും നമ്മൾ അയക്കുന്ന പൈസ ഇന്നയാളുടെ കയ്യിൽ തന്നെയാണോ ചെല്ലുന്നത് എന്നൊക്കെയോർത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് ഒരു ഉത്കണ്ഠയുണ്ട് അതു കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ബാങ്കിൽ ചെന്നാണ് ഞാനാണെങ്കിൽ പൈസയൊക്കെ അടക്കാറുള്ളത് എൻ്റെ മക്കൾ തന്നെ പറയുന്നുണ്ട് അത് ഇൻറ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്ക് ബാങ്കിങ്ങിനു വേണ്ടി പക്ഷെ എനിക്കതിനോടൊന്നും വലിയ താൽപ്പര്യം ഇല്ല അതു കൊണ്ടു ഞാൻ നേരിട്ടാണ് ബാങ്കിങ് ബാങ്കിൽച്ചെന്നു പല പേയ്മെൻറ്റുകൾ നടത്തുന്നത് അതു പോലെതന്നെ ഈയിടക്ക് ഞാ ഞാൻ നമ്മുടെ വിള വളരെയധികം പ്രധാനപ്പെട്ടതാണ് കൃഷിക്ക് അപ്പോൾ ഈ വിള ഇൻഷുറൻസ് പോളിസിക്കും അതു പോലെതന്നെ ഈ എന്താണ് ഇപ്പോൾ എല്ലാ ഇൻറ്റർനെറ്റിലൂടെയാണ് എല്ലാ ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ രീതികളെല്ലാം മാറിയല്ലോ അതു കൊണ്ടു തന്നെ ഇന്ന സംഭവങ്ങളൊക്കെ ഇന്ന രീതിയിലെ ചെയ്യാൻ പറ്റുകയുള്ളൂയെന്നുള്ള ചില നിബന്ധനകളൊക്കെയുണ്ട് അതു കൊണ്ടു തന്നെ ഇപ്പോൾ ഈയിടക്ക് ഞാൻ കേട്ടു വിള ഇൻഷുറൻസും ഇൻറ്റർനെറ്റ് സംവിധാനം വഴിയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതു പോലെ നേരിട്ട് അതായത് പരമ്പരാഗത ഈ ബാങ്കിങ് ചാനലുകൾ വഴി അതായത് അതായത് ഇൻറ്റർനെറ്റൊക്കെ വരുന്നതിനു മുൻപു തന്നെ ചെയ്തു കൊണ്ടുള്ള രീതിയിൽ തന്നെ പിന്നെ തുടർന്നു ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാനാണ് ഞാൻ വിളിക്കുന്നത് അത്തരം അതായത് എൻ്റെയീ വിള ഇൻഷുറൻസ് പോളിസിക്കൊക്കെ പാരമ്പരാഗതമായിട്ടുള്ള ബാങ്കിങ് സംഭവമൊക്കെ ലഭ്യമാണോയെന്ന് അറിയാനാണ് ഞാനാഗ്രഹിക്കുന്നത് അതു കൊണ്ടു തന്നെ എന്നായിരുന്നു ഇൻറ്റർനെറ്റ് എനിക്ക് ഇൻറ്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത അതുകൊണ്ട് അത്തരം ഇതില്ലാത്തതു കൊണ്ടു തന്നെ ഈ പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷനുകളെക്കുറിച്ച് എനിക്കൊന്നന്വേഷിക്കണം അതു പോലെ തന്നെ എന്തായിരുന്നു ഈയൊരു എന്താ പരമ്പരാഗതമായിട്ടുള്ള ബാങ്കിങ് ചാനലുകളിലൂടെ അല്ലെങ്കിൽ ബാങ്കിങ് വഴിയിലൂടെ ഈ പ്രീമിയം അടക്കാൻ എനിക്ക് പറ്റുമോ അതായത് ഇൻറ്റർനെറ്റ് വഴിയൊക്കെ അല്ലേ ഇൻറ്റർനെറ്റ് മൊബൈൽ ഗൂഗിൾ പേ അല്ലാഞ്ഞിട്ട് സംഭവം ഉപയോഗിക്കാതെ തന്നെ നേരിട്ടെനിക്ക് ബാങ്ക് വഴി ചെന്നിട്ട് ഇതൊക്കെ അടക്കാൻ പറ്റുമോ എന്നെനിക്കറിയണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനാണ് ഞാൻ വിളിച്ചതും